ഹലോ ആ ആ ഗുഡ് മോർണിംഗ് സാർ സാർ രാത്രി ഉറക്കമൊക്കെ സുഖകരമായിരുന്നോ ആ അ നമ്മുടെ താമസം ഒന്നും കുഴപ്പമില്ലായിരുന്നല്ലോ

ആ ഞാൻ ആ ഓക്കേ ആ സാർ എപ്പോഴത്തേക്കാണ് റെഡി ആകുന്നത് ഓക്കേ നമുക്ക് രാവിലെ ഒരു ഡാം കാണാന് പോകാം ഇവിടെ അടുത്ത പൊന്മുടി എന്നു പറഞ്ഞ സ്ഥലത്ത് ഒരു ഡാമുണ്ട് അവിടെ പോകാം അതു ഡാമിൻ്റെ അകത്തേക്ക് കുറച്ചായി ഇറങ്ങിച്ചെല്ലാം ആ അതിൻ്റെ മുകളിലായിട്ടൊരു മലയുണ്ട് ആ മലയിൽപ്പോയാല് ഡാമിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കാണാം അഡ്വഞ്ചറായിട്ട് ഹയാക്കെയ്യാം മറ്റേ ഹൈക്കിങ്ങുണ്ട് അല്ലെങ്കില്പ്പിന്നെ വണ്ടികൾ ജീപ്പേല് നമുക്ക് ട്രിപ്പ് ട്രക്കിങ്ങായിട്ടു പോകാം

ട്രാക്കിങ്ങിനു പോകുന്നത് ഇൻക്ലൂഡഡ് അല്ല സാർ ആ ആ അതിനു പ്രത്യേകം പേയ്മെൻ്റ് നടത്തണം അതൊരു മുവായിരം രൂപ അടുത്തു വരും നമ്മുടെ എട്ട് സ്പോട്ടുകളാണ് അതിൽ പോകുന്നത് ഡാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ കറങ്ങി അത് ഒരിടത്തുനിന്ന് സ്റ്റാർട്ടെയ്ത് അടുത്തടുത്ത് എത്തുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ അതിങ്ങനെ കറങ്ങി വരുന്നു അമ്യൂസ്മെൻ്റ് പാർക്ക് ചെറിയ കുട്ടികൾക്കു കളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഉണ്ട് ആ ആ അതു നമ്മള് ഇപ്പോള് പാർക്കില് കയറുന്നതിനുള്ള ഫീ നമ്മൾ നൽകേണ്ടതാണ് ആ നമക്ക് ഇതൊരു മൂന്നു മണിക്കൂറാണ് ഈ പ്രോഗ്രാം വരുന്നത് നമ്മൾ ഒരു ഒന്പതു മണി ആകുമ്പോള് ചെല്ലുകയാണെങ്കില് നമുക്കൊരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേനും തിരിച്ചെത്തി ലഞ്ചിന് കഴിക്കാനുള്ള സമയത്തേക്കു നമുക്കു തിരിച്ചെത്താൻ സാധിക്കും ആ ഒന്നും വേണ്ട സാർ ആ ഓ ഒന്നും വേണ്ട ഒന്നും വേണ്ട നമ്മൾ സാധാരണ പോകുന്നതു പോലെ പോയാൽ മതി ബാക്കി അവരുടെ പ്രിപ്പറേഷൻസെല്ലാം അവരുടെ കയ്യിലുണ്ട് ഉച്ച കഴിഞ്ഞ് നമുക്കു മൂന്നാറില് സൈറ്റ് സീയിങിനു പോകാം ഫുഡ് കഴിഞ്ഞിട്ട്

ആ സ്വിമ്മിംഗ് പൂൾ നമ്മുടെ ഹോട്ടലിനോടു ചേർന്നുള്ളതേ ഉള്ളൂ സാർ അല്ലാണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂൾ വരുന്നില്ല ഇവിടെ

ഓ ആ ആ ആ ആ പോകുന്ന വഴിക്ക് നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്കു പോകുന്ന വഴിക്കു ലഭിക്കുന്നതാണ് ആ പിന്നെ നമുക്ക് മൂന്നാറില് പോകുന്നു വൈകുന്നേരമാകുമ്പോഴേക്കും തിരിച്ചുവരാവുന്ന രീതിയിലാണ് ഇന്നത്തെ പ്രോഗ്രാം ആ ആ ആ പറഞ്ഞിരിക്കുന്നത്

ഇന്നിപ്പോള് മഴയ്ക്കു സാധ്യത കുറവായിരിക്കും വലിയ തണുപ്പായിരിക്കും എന്നാലും മഴയ്ക്കു സാധ്യത ഇന്നു കുറവാണ്

അമ്പ്രല്ലായുടെ ഒന്നും ആവശ്യം വരില്ല സാറേ അമ്പ്രല്ല നമുക്ക് വണ്ടിയിലുണ്ട് നമുക്കപ്പോള് അങ്ങനെ അമ്പ്രല്ല കരുതേണ്ട കാര്യമില്ല ആ ഈ അല്ലല്ല നമ്മള് ട്രക്കിങ്ങിനു പോകുന്നത് ട്രക്കിങ്ങിൻ്റെ ജീപ്പേലാണ് ട്രക്കിംഗ് കഴിയുമ്പോൾ നമുക്ക് ആ മൂന്നാറിനു പോകുന്നതു നമ്മുടെ വണ്ടിയിൽ തന്നെയാണു പോകുന്നത് ആ നമ്മള് ഇപ്പോള് ഒരു പത്തു മണി ആവുമ്പോഴത്തേനും ട്രക്കിങ്ങിന് അല്ല ഒമ്പത് ഒമ്പതര ആകുമ്പോഴത്തേനും ട്രക്കിങ്ങിനു പോകുന്നു ട്രക്കിങ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആകുമ്പോഴത്തേനും കഴിയുന്നു നമ്മൾ ലഞ്ചിനു പോകുന്നു ലഞ്ച് കഴിഞ്ഞിട്ട് മൂന്നാറിന് ആ പോ ആ മൂന്നാർ എന്നു പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ് അവിടെ ഒത്തിരി സ തേയിലത്തോട്ടങ്ങളും പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഹൈ ഏരിയ ആയതുകൊണ്ട് തണുപ്പ് അത്യാവശ്യം തണുപ്പുള്ളൊരു സ്ഥലമാണ് ആ കാണാന് പറ്റും സാധിക്കും ഫാക്ടറി വിസിറ്റ് നമുക്കു കിട്ടും ആ ആ സ ആ സാധനങ്ങൾ മേടിക്കാൻ അവരുടെ തന്നെ ഔട്ട്ലെറ്റുണ്ട് അവിടെ പോയി നമുക്ക് ചായപ്പൊടി അതുപോലെ അവരുടെ വിവിധതരം ചായപ്പൊടികള് നമുക്ക് അവിടുന്ന് പർച്ചേസെയ്യാവുന്നതാണ് ഓ അപ്പോള് ഓക്കെ സാറെ ആആ ഫ്രഷപ്പായിട്ട് എത്രയും പെട്ടെന്ന് ഫ്രഷപ്പായിട്ട് നാലു മണി ആകുമ്പോഴത്തേനും അല്ല അപ്പോള് ഒമ്പതരയാകും